കേരളത്തിൽ ആരോഗ്യ പരിരക്ഷക്കായിട്ട് കുറേ പദ്ധതികളുണ്ട് ആരോഗ്യ ഇൻഷൂർ കാർഡ് പിന്നെ നീതി സ്റ്റോറ് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് കാരുണ്യ മെഡിക്കൽ സെൻ്ററ് സർക്കാർ ഹോസ്പിറ്റലിൽ പൈസ കുറവാണ് അങ്ങനെ കുറേ പദ്ധതികളുണ്ട് പിന്നെ ആരോഗ്യ ഇൻഷോർ കാർഡ് പാസ്സാക്കൽ പൈസക്ക് പാസാക്കൽ എന്നുപറഞ്ഞാൽ നമ്മൾ ഡോക്ടറൂടെ അടുത്ത് ചെന്നിട്ട് പറയാം അപ്പോൾ ഡോക്ടറ് പറയും അവിടെ ഓസ് അതിൻ്റേതായിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമ്മൾക്ക് പാസ്സാക്കി എടുക്കാൻ പറ്റും ഡോക്ടറ് ഒപ്പിട്ട് തന്നാൽ റേഷൻ കാർഡും നമ്മളെ അധാർ കാർഡൊക്കെ കൊണ്ട് പോയി കൊടുത്താങ്ങാണ്ട് ഓഫീസിൽ കൊടുത്താൽ ഓല് പാസ്സാക്കി തരും പിന്നെ കാരുണ്യ ആരോഗ്യ പദ്ധതി നമ്മൾ മെഡിക്കൽ കോളേജിൽ ഏത് ഡോക്ടറെയാണോ കാട്ടണത് എങ്കിൽ ആ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് നമ്മൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ ഡോക്റ് പറയും ഇങ്ങനെ കാരുണ്യക്ക് അപേക്ഷിക്കാം പറഞ്ഞിട്ട് ഫോമ് അപ്പോൾ പറയുമ്പം നമ്മൾ ഫോമ് വാങ്ങിയിട്ട് പൂരിപ്പിച്ചിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടു പോയി കൊടുത്തങ്ങാണ്ട് ഒപ്പ് ഇടിക്കുക എന്നിട്ട് ആ ഒപ്പ് കിട്ടിയതിൻ്റെ ശേഷം നമ്മൾ ആരോഗ്യ അല്ല കാരുണ്യ മലപ്പുറത്ത് കാരുണ്യൻ്റെ ഓഫീസിൽ കൊണ്ടു പോയി കൊടുക്കുക അപ്പോൾ ഒരു ആഴ്ച്ചൻ്റെ ഉള്ളിൽ ഓലത് പാസ്സാക്കിത്തരും പിന്നെ നീതി സ്റ്റോറിൽ മരുന്നിന് നല്ല കുറവാണ് പിന്നെ സർക്കാർ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നല്ല സഹായം കിട്ടും പൈസ ഇല്ലാതെ മരുന്ന് കിട്ടും നമ്മൾ അതിൻ്റെ ഇതായിട്ടുള്ള രീതിയിൽ ആ ബുക്ക് കൊണ്ട് പോയി ഒപ്പിട്ട് ഗവെർമെൻ്റ് ഡോക്ടറെ അടുത്ത് നിന്ന് ഒപ്പ് വാങ്ങിയിട്ട് കാണിച്ച് കൊടുത്താൽ അങ്ങനെ മരുന്ന് കിട്ടും ഞങ്ങളെ അവിടത്തെ ആശാ വർക്കറ് അതിന് നല്ല ആളാണ് അത് അങ്ങനെ ഒക്കെ എല്ലാം ചെയ്ത് നമുക്ക് നേടി തരും